ഒരിക്കലെൻ്റെ വീട്ടിൽ കുറെ ഗസ്റ്റ് വന്നു എൻ്റെ വീട്ടിൽ അമ്മയില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളു എനിക്ക് അത് ഒക്കെ അവർക്ക് വേണ്ടി കുക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ എന്നെ ഹെല്പ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഞാൻ അവർക്കെല്ലാവർക്കും കൂടിയിട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കികൊടുത്തു അയ്യോ അത് വളരെ ഏറെ ഒരു സ്ട്രെസ്സ്ഫുൾ ടൈം ആയിരുന്നു ഞാൻ ധൃതിയിലുണ്ടാക്കുന്നു അതിൻ്റെ ഇടയിൽ ചില സാധനങ്ങൾ മുറിച്ച് മുറിക്കാൻ മറക്കുന്നു പക്ഷേ എൻ്റെ കൂടെ ആ ഹെൽപ്പർ ഉള്ളതു കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു ഒരു ദിവസം രാവിലെ ആയിരുന്നു തോന്നുന്നുണ്ട് അമ്മയൊന്നുമില്ല വീട്ടിൽ ഞാൻ മാത്രം പെട്ടെന്ന് എൻ്റെ കുറെ ഫ്രെൻഡ്സും പിന്നെ എൻ്റെ കുറെ കസിൻസും അങ്ങോട്ടു കയറി വന്നു എനിക്കാണെങ്കിൽ എന്ത് വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല ഞാനപ്പോൾ ഭാഗ്യത്തിന് ബിരിയാണിയുടെ അരി ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനവരോട് ചോദിച്ചു വെജിറ്റബിൾ ബിരിയാണി മതിയോ ചോദിച്ചു അപ്പോൾ അവർ ആ ഓക്കെ എന്നു പറഞ്ഞു അങ്ങനെ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി എൻ്റെ കൂടെ ഹെല്പ് ചെയ്യാൻ ഒരുത്തി ഉണ്ടായിരുന്നു അവളെന്നെ ഹെല്പ് ചെയ്തു പിന്നെ വേഗം നോക്കി ആ സമയത്താണ് പാത്രത്തിൻ്റെ പാത്രങ്ങളൊന്നും കാണുന്നില്ല ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊന്നും കാണാനില്ല എല്ലാം കുറെ വലിയ വലിയ വലിയ പാത്രങ്ങൾ ബിരിയാണിക്ക് പറ്റിയ ഒരൊറ്റ പാത്രം ഇല്ല എന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഒരു പാത്രം തരുമോ ചോദിച്ച് അവരുടെ വീട്ടിൽ നിന്ന് പാത്രം വാങ്ങി കുക്ക് ചെയ്യാൻ തുടങ്ങി കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്റ്റൌ ഓണാകുന്നില്ല എനിക്കു പേടി ആയി ഞാൻ അമ്മയെ വിളിച്ചു അമ്മ പറഞ്ഞു സ്റ്റൗ ഇങ്ങോട്ടേക്ക് തിരിക്കുക ലെഫ്റ്റിലേക്ക് അല്ല റൈറ്റിലേക്കാണ് തിരിക്കേണ്ടത് എന്ന് കാരണം പുതിയ സ്റ്റൗ ആയിരുന്നു എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ഞാൻ റൈറ്റിക്ക് ഒക്കെ തിരിച്ച് സ്റ്റൗ ഒക്കെ ഓൺ ആയി അതിന്റെ ഇടയ്ക്ക് എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നില്ല ഞാൻ വേഗം പോയി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ എൻ്റെ ഫ്രെൻഡ്സ് ഹെല്പ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറെയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പെട്ടെന്ന് ആയിരുന്നു അത് ഈ ചെറിയ രീതിയിൽ ഒന്നു തീപിടിച്ചു അവിടെ ഒരു പേപ്പർ കഷ്ണം ഇരിക്കുന്നുള്ളതു കൊണ്ട് സ്റ്റൗവിൽ നിന്നുള്ള തീ വേഗം ഇതിലേക്കു വന്നിട്ട് ചെറുതായി തീ പിടിച്ചു പെട്ടെന്ന് ഞാൻ വെള്ളം ഒക്കെ ഒഴിച്ചു കെടുത്തി എന്നതുകൊണ്ട് വലിയ കുഴപ്പം ഒന്നും ഉണ്ടായില്ല പിന്നെ ലാസ്റ്റ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ഇപ്പോഴും എന്നെ എല്ലാവരും എന്നെ പറഞ്ഞു പറഞ്ഞ് ഭയങ്കര രീതിയിൽ പ്രശംസിക്കാറുണ്ട് ഓഹ് നീ നന്നായി ബിരിയാണി ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരണം ബിരിയാണി അതൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കിയന്ന് പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നു ചായ ഒക്കെ ഉണ്ടാക്കാൻ എനിക്കു വന്നിട്ടുണ്ട് അവസരം ചായയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഏറെ എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും